ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തിതൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല്